അമൈന കേറിവാടി നോക്കു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഇന്നലെ ഒരു കുട്ടിയെ പട്ടികടിച്ചു അപ്പോൾ ഞങ്ങളുടെ വീട്ടില് രണ്ടു പട്ടിയൊക്കെ ഉണ്ട് ഞങ്ങൾ അതിന് വേണ്ട പിന്നെ കുത്തിവെപ്പൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി അതിന്റെ അടുത്ത് കൂടെയൊക്കെ നിറയെ പട്ടികളാണ് വാ അടുത്ത വീട്ടിലെ പട്ടിയാണ് ആ കുട്ടിയെ കടി കടിച്ചിട്ടുള്ളത് അപ്പോൾ ആളുകളൊക്കെ ഓടിക്കൂടി അടുത്ത വീട്ടിലെ ആളുകളൊക്കെ വന്ന് എന്തെയ്തു ആ കുട്ടിയുടെ കാലിന്റെ മുറിവിന്റെ തൊട്ടു മുകളില് ഒന്നായിട്ടു കെട്ടിയിട്ട് പെ പെട്ടെന്ന് പിന്നൊരു തീക്കൊള്ളിയൊക്കെ കത്തിച്ചു കൊണ്ടു വന്നിട്ട് എന്തുചെയ്തു ആ അതില് ആ തീക്കൊള്ളിയിലേക്ക് പിന്നെ അതിന്റെ മുകളിലേക്ക് പിന്നെ വെള്ളം ഒഴിച്ചു പിന്നയതിനുശേഷം എന്തുചെയ്തു അത് നന്നായിട്ട് സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടു പോയി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടു പോയിട്ട് ആ കുട്ടിയെ എന്താ പിന്നെ പതിനാല് സൂചി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുക്കിളിന് ചുറ്റും പതിനാല് സൂചി വയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പത്തെ ഒരു അഞ്ചാറ് സൂചി ഒന്നിച്ചെടുത്ത് കൊണ്ട് വന്നു അവര് പി ഇന്ജെക്ഷനൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇനിയുണ്ട് ബാ എടുക്കാന് അത് പിന്നെ സാവധാനം എടുക്കാന്നാല്ല ഓരോ ഒരു മാസത്തിന്റെ ഉള്ളില് കറക്റ്റായിട്ട് കുറച്ച് ദിവസങ്ങള്ണ്ട് അപ്പോൾ ആ ദിവസങ്ങളില് ഇങ്ങനെ കൊണ്ടുചെന്നിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുചെന്നിട്ട് ഇന്ജെക്ഷനെടുക്കാന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് വേദന സഹിക്കേണ്ടിവന്നു ഇപ്പോൾ ഇന്ജെക്ഷന്റെ വേദനയും പട്ടി കടിച്ചതിന്റെ വേദനയും അപ്പോൾ ഒരു ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഉള്ളത് അവരത് ശെരിക്കും ശ്രദ്ധിക്കാത്തതാണ് ഇതിനുള്ള കാരണങ്ങളൊക്കെ